ഇത് താജ് ഹോട്ടൽ അല്ലേ ആ ആ ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചത്

ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടാണ്

അതിന് പ്രൈസ് എങ്ങനെയായിരുന്നു

അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനാകുമ്പോൾ ഇതേ റേറ്റ് തന്നെ ആയിരിക്കുമോ അതോ

ആ അത് മാത്രം മതിയോ വേറെ എന്തെങ്കിലും വേണ്ടി വരുവോ ആ ഓ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തിയേഴ് വരെ ആ ആ ഓക്കെ ആ ഓക്കെ ഞാൻ എന്തായാലും ചെയ്യാം

ആ ഓക്കെ ആ വാട്സാപ്പ് ചെയ്താൽ പോരേ ആ ഓക്കെ